യഥാർഥത്തിൽ ചെറുതായിട്ട് ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്കൊരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെയുണ്ടായിരുന്നു പിന്നെ ഒരു പ്ലസ് ടു ഒക്കെ എത്തിയതിന് ശേഷം ഡിഗ്രിയൊക്കെ ചെയ്ത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ജോലി എന്നൊരു ലക്ഷ്യം മാത്രേ ഉണ്ടായിരുന്നുള്ളു എ സ്പെസിഫിക് ജോലി ചെയ്യണം എന്നോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എത്രയും പെട്ടന്ന് ഡിഗ്രി ചെയ്യുന്നതിന് തന്നെ ഒരുപാട് പേർക്ക് വിയോജിപ്പുണ്ടായിരുന്നു അപ്പം എത്രയും പെട്ടന്ന് തന്നെ എനിക്ക് ആ ഡ് ഡിഗ്രി കഴിഞ്ഞൊരു ജോലിലേക്ക് പോവുക എന്നൊക്കെയായിരുന്നു അന്ന് ചിന്ത ഇണ്ടായിരുന്നത് അപ്പോൾ അതിനനുസ അതുകൊണ്ട് തന്നെ ഒരു ഐടി ജോബ് ചെയ്തു പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം വരുന്നുണ്ട് കാരണം ബാങ്കില് ജോലി ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് അപ്പോൾ അത് എന്ത് കൊണ്ടെന്ന് വച്ച് കഴിഞ്ഞാല് നമ്മൾടെ സമൂഹത്തിലേക്കിറങ്ങി എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ചോദിക്കുന്ന സമയത്ത് അവർ ആദ്യം ആ കാര്യത്തെക്കുറിച്ച് നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ അപ്പോൾ എല്ലാരും ഈ ബാങ്ക് ജോലിയെ കുറിച്ച് പറഞ്ഞത് ഭയങ്കര സ്ട്രെസ് ഫുള്ളായിട്ടുള്ള ജോലിയാണ് അത് ആർക്കും ചെയ്യാൻ പറ്റില്ല ചെയ്താൽ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്നും എന്നുള്ളത് കൊണ്ട് ഞാൻ ബാങ്ക് ജോലി തന്നെ ചൂസ് ചെയ്ത് അതിന് വേണ്ടി പഠിക്കുകയാണ് അതിന് വേണ്ടി നല്ല എഫർട്ട് എടുത്ത് പഠിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ